ഞാന് ജൂൺ മൂന്നാം തീയതി ഓൺലൈനിലൂടെ ഒരു കുർത്തി സെറ്റ് ഓഡര് ചെയ്തിരുന്നു പക്ഷേ അത് ലാർജാണ് ഞാൻ ഓഡര് ചെയ്തത് എനിക്ക് ജൂൺ ഏഴാം തീയതി അത് ഹോം ഡെലിവേഡായി എനിക്ക് വീട്ടില് വന്നു ഞാനത് ഓപ്പൺ ചെയ്തു ഞാനത് ട്രയല് ചെയ്ത് നോക്കിയപ്പോഴതിൻ്റെ സൈസ് ചെറുതാണ് അപ്പോള് എനിക്ക് എക്സ് എല്ലാണ് വേണ്ടത് എനിക്ക് ഞാൻ എനിക്ക് ലഭിച്ചത് ലാർജാണ് പക്ഷേ അത് ചെറുതാണെനിക്ക് എക്സ് എൽ സൈസിലുള്ളതാണ് വേണ്ടത് അപ്പോള് ഞാനത് അന്ന് തന്നെ ഓൺലൈനില് ഞാനതിൻ്റെ പ്രോസീജിയര് ചെയ്തിരുന്നു ഞാനത് റിട്ടേൺ ചെയ്യാനുള്ള നടപടി ക്രമങ്ങള് സ്റ്റാർട്ടെയ്തിരുന്നു എനിക്ക് വന്നതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം തന്നെ ഞാനത് റിട്ടേൺ ചെയ്തു അവര് പറഞ്ഞ പ്രോസിജിയറനുസരിച്ച് തന്നെ ഞാൻ റിട്ടേൺ ചെയ്തു അപ്പോള് എന്നോട് പറഞ്ഞത് എനിക്ക് എക്സ് എല്ലില് പുതിയ കുർത്തി വരും സേം കുർത്തി തന്നെ വരുമെന്നുള്ളതായിരുന്നു അപ്പോള് അതിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് ഇതിൻ്റെ റിട്ടേൺ അഭ്യർഥനയുടെ ഡവലപ്പ്മെൻറ്റ് എന്താണതിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്താണ് എന്തൊക്കെ നിങ്ങള് പറഞ്ഞ പോലെ തന്നെ തന്നെ വേറെ എനിക്ക് പ്രോഡക്റ്റ് തരുമോ ഇങ്ങനെയുള്ള കാര്യങ്ങള് അറിയണം